വാർത്തകള് മാത്രമല്ല വായിക്കുന്നത് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും പത്രം ഫുള്ള് പസിലുകളും കോമിസുകളും എല്ലാം ഇഷ്ടമാണ് പ്രധാനമായും വാർത്തകളിലെ ആണ് നോക്കാറുള്ളത് കാരണം ഓരോ ഹെഡിങ്ങുകളും നോക്കി കഴിഞ്ഞ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള അല്ലെങ്കിൽ അറിയണ്ട വാർത്തകളാണെങ്കിലും അതിന് പ്രാധാന്യം കൊടുത്ത് നമ്മള് വായിക്കാണ് ഓരോ ദിവസവും വാർത്തകള് മുഴുവൻ വായിക്കാനുള്ള സമയം കിട്ടുന്നില്ലാന്നുണ്ടെങ്കില് പ്രധാന വാർത്തകൾ മാത്രം നോക്കി പോകാറുണ്ട് അല്ലാ അല്ലാതെ നേരെയുള്ള സമയങ്ങളിൽ മുഴുവൻ വായിക്കാറുമുണ്ട് പത്രത്തില് കൂടെ ഒത്തിരി ഒത്തിരി അറിവുകള് കിട്ടുന്നുണ്ട് അതുകൊണ്ടുതന്നെ പത്രം വായന ഇഷ്ടമാണ് പിന്നെ ഓരോ അന്നന്ന് നടക്കുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റി അറിയാനും അതു കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും പുരോഗതിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള വാർത്തകളൊക്കെ ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കാറുണ്ട് രാവിലെ തന്നെ പത്രം വായിക്കണം എന്നൊരു പതിവുണ്ട് അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ